ആ ചേട്ടാ ആ ആ പേര് പേരെന്താണ് പറഞ്ഞത് നിധിൻ ആ ആ ആ നമ്മുടെ മറ്റേ ഇവിടെ പാലക്കാട് മറ്റേ ഫോക്കസിൽ വർക്ക് ചെയ്യുന്ന അജിത്തിൻ്റെ ഫ്രണ്ടാണല്ലേ ആ അജിത്തേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അ ആ അജിത്തേട്ടൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അജിത്തേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു ഫ്രണ്ടിനു വേണ്ടിയിട്ട് വീട് നോക്കണമെന്നു പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റേയ്ൽസൊന്നും ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വീട് നോക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളേ അ ആ ആയിരത്തഞ്ഞൂറ് സ്കൊയർ ഫീറ്റല്ലേ അപ്പോൾ ചേട്ടനെങ്ങനെയാണ് അപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ടൗണിനകത്താണോ ഉദ്ദേശിക്കുന്നത് അതോ കുറച്ച് ഉള്ളിലോട്ട് മാറിയിട്ടാണോ ഉള്ളിലോട്ടെന്നു പറയുമ്പോൾ നമ്മുടെ കസ്റ്റഡിയിൽ ഇപ്പോൾ മൂന്നുനാല് വീടുണ്ട് വീടുണ്ട് പിന്നെ ഒരു രണ്ട് വീടുണ്ട് അതിപ്പോൾ ഒന്നു വന്നിട്ട് നമ്മുടെ ടൗണിൽ തന്നെയാണ് പിന്നെ ഒന്ന് കുറച്ച് ഉള്ളിലോട്ടാണ് പിന്നെ വേറെ രണ്ട് മൂന്ന് ഉണ്ട് പക്ഷേ ആ ആ അപ്പോൾ നമ്മുടെ കൈയ്യിൽ ഉള്ളതിലിപ്പോൾ വന്നിട്ടൊരു പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ ഒരായിരത്തി മുന്നൂറ് സ്കൊയർ ഫീറ്റ് വീടൊന്നുണ്ട് അത് നല്ല വീടാണ് ഇതിപ്പോൾ ഉള്ളതിൽ നമ്മുടെ കൈയ്യിൽ രണ്ടു ബെഡ് റൂം ഹാൾ സിറ്റ്ഔട്ട് ഇതൊക്കെയുള്ള ഒരു വീടാണ് അത്യാവശ്യം ഒരു നാലു വർഷം അഞ്ചു വർഷം പഴക്കം ഉള്ള വീടാണ് ഇല്ല അതിപ്പോൾ ഇല്ല നല്ല പാർട്ടിക്കാരാണ് നല്ല പാർട്ടിക്കാരാണ് അപ്പോൾ അവരവിടെനിന്ന് സ്ഥലം മാറിയിട്ട് വീട് ആ ആ

ആ ആ അല്ല ഇതിപ്പോൾ പതിനഞ്ച് സെന്റ് സ്ഥലമാണ് പതിനഞ്ച് സെന്റ് സ്ഥലത്താണ് വീടുള്ളത്

അ ആ ഇതിപ്പോൾ ആള് ഗവൺമെന്റ് ജോലിക്കാരനാണ് അപ്പോൾ ഇവിടെനിന്ന് ട്രാൻസ്ഫെറായിട്ടാണ് ആൾ പോകുന്നത് കണ്ണൂരിലോട്ട് പോകുന്നു അപ്പോൾ ഇവിടെനിന്ന് ഇപ്പോൾ വീട് വിറ്റിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ നാലോ അഞ്ചോ വർഷം പഴക്കം ഉള്ളൂ വീടിന് ഇല്ല ടൗണിൽ നിന്നൊരു അഞ്ച് കിലോമീറ്റർ എങ്ങാണ്ടുള്ളൂ നമ്മുടെ അവിടെനിന്ന് പാലക്കാടു നിന്നിപ്പോൾ മേഴ്സി കോളേജ് മേഴ്സി കോളേജിൽ നിന്ന് ഒരു രണ്ട് കിലോ മീറ്റർ ആ ആ ആ ആ ആ ആ ഇപ്പോൾ ചേട്ടൻ ചേട്ടൻ എന്തു വർക്കാണ് ചെയ്യുന്നത് ഇപ്പോൾ അ ആ അപ്പോൾ പിന്നെ കുറച്ചുകൂടി സൗകര്യം ആയിരിക്കും ടൗണിനോട് ചേർന്നിട്ടുള്ള വീടല്ലേ ഇതിപ്പോൾ വലിയ കാലപ്പഴക്കമൊന്നുമില്ല അതല്ലാതെ പിന്നെ നമ്മുടെ കൈയ്യിൽ വേറൊരു വീടൂ കൂടിയുണ്ട് അതു പക്ഷെ കുറച്ച് ഉള്ളിലോട്ട് ആയിട്ടാണ് അതു വന്നിട്ട് ആനിക്കോടാണ് ആനിക്കോട് മാത്തൂർ ആനിക്കോടായിട്ട് വരും അതു പക്ഷേ ചേട്ടൻ പറ ചേട്ടൻ പറഞ്ഞതുപോലെ റോഡ് സൈഡല്ല കുറച്ചുള്ളിലോട്ട് പോകണം അത്

അങ്ങനെയാണെങ്കിൽ ഞാനാദ്യം പറഞ്ഞില്ലേ ആയിരത്തി മുന്നൂറ് സ്കൊയർ ഫീറ്റിൻ്റെ വീട് അത് കുറച്ചുകൂടി കുഴപ്പം ഉണ്ടാവില്ലെന്ന് തോന്നുന്നു ചേട്ടൻ നോക്കിയിട്ട് എങ്ങനെയെന്നു വച്ചാൽ നോക്കിയിട്ട് അതു റോഡ് സൈഡ് തന്നെയാണ് അത്യാവശ്യം സ്ഥലമുണ്ട് ഒരു നാല് അഞ്ചു വർഷം പഴക്കമുള്ള വീടാണ് ഇപ്പോൾ ചേട്ടനെങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എത്രയാണപ്പോൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് റേയ്റ്റൊക്കെ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അല്ല അതിപ്പോൾ അവർ പറയുന്നത് ഒരു മുപ്പത് ആണ് പറയുന്നത് നമുക്ക് എങ്ങനെയെങ്കിലും ഒന്നു സംസാരിച്ചിട്ടൊരു ഇരുപത്തിയൊമ്പത് അല്ലെങ്കിൽ ഇരുപത്തെട്ട് അതിപ്പോൾ അത്യാവശ്യം നല്ല റേയ്റ്റുള്ള ഏരിയ ആണ് റോഡ് സൈഡും ഇതൊക്കെ അതുപിന്നെ ടൗണിനോട് ഒത്തിരി ചേർന്നു കിടക്കുന്നതു കൊണ്ട് അത്യാവശ്യം ഉണ്ട് റേയ്റ്റുണ്ടിപ്പോൾ നമ്മളെങ്ങനെ നമുക്ക് സംസാരിച്ചിട്ട് നമുക്കിപ്പോൾ അജിയേട്ടൻ പറഞ്ഞതുകൊണ്ട് നമുക്കൊന്നും പറയാനും പറ്റില്ലല്ലോ അപ്പോൾ നമുക്കൊന്നു പോയി സംസാരിച്ചിട്ട് ഒന്ന് ആളെ ഒന്നു സംസാരിച്ചിട്ട് ആ ആ അപ്പോൾ ചേട്ടൻ എങ്ങനെയപ്പോൾ ഫ്രീ എങ്ങനെയാണ് അപ്പോൾ ഈ ഞായറാഴ്ച്ച ആണെങ്കിൽ അ ആ അ ചേട്ടനെന്നാൽ ഈ ഞാനെൻ്റെ നമ്പർ ഉണ്ടല്ലോ കൈയ്യിലുണ്ടല്ലോ ഇല്ലേ ആ ഇതുതന്നെ ഇതുതന്നെ ഇതുതന്നെ എന്നാൽ അതു പറഞ്ഞോ അജിയേട്ടന്റടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അജിയേട്ടൻ തന്നിട്ടുണ്ടായിരുന്നുയെന്ന് പറഞ്ഞു ഒരു നമ്പർ അ ആ അതെ അതിൽ വിളിച്ചാൽ മതി ആ നമ്പറിൽ വിളിച്ചാൽ മതി അങ്ങനെയാണെങ്കിൽ ചേട്ടൻ്റെ ഒഴിവ് നോക്കിയിട്ട് നമുക്ക് രാവിലെ പോവാം ആ ആ ശരി ചേട്ടാ എന്നാൽ കാണാം കാണാം ശരി ഞാൻ വിളിക്കാം നാളെ നോക്കിയിട്ട് പാർട്ടിക്കാരെയൊന്ന് വിളിച്ച് നോക്കിയിട്ട് ചേട്ടനെ വിവരം അറിയിക്കാം ശരി എന്നാൽ ചേട്ടാ ശരി ആ